ക്യാബ് ഏജൻസിയല്ലേ ഞാന് കഴിഞ്ഞ പ്രാവശ്യം അതായത് നമുക്കൊരു ബാംഗ്ലൂർ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയാണേ അതെ അപ്പോൾ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഒരു എറണാകുളത്തേക്കുള്ള ട്രിപ്പിനു നമ്മളൊരു മിസ്റ്റർ സന്തോഷ് എന്നു പറഞ്ഞൊരാളെ ക്യാബ് ആയിരുന്നുട്ടോ ബുക്ക് ചെയ്തത് അപ്പം അതേ ക്യാബ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു അതാകുമ്പോൾ അത്യാവശ്യം നമുക്ക് വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ കിടക്കാനുള്ളൊരു സൗകര്യവും കാര്യങ്ങളൊക്കെ ആ വണ്ടിയിലുണ്ട് പിന്നെ ആ ഡ്രൈവർ ചേട്ടനും അടി അടിപൊളി സ്വഭാവമാണ് നമുക്ക് എപ്പഴും അമ്മയ്ക്കൊക്കെ നടക്കാനൊക്കെ വയ്യ ഒന്ന് പിടിച്ച് കൊണ്ട് പോകാനും എല്ലാത്തിനും നല്ല അടിപൊളി സ്വഭാവമാണ് അപ്പം ആ ചേട്ടനെ തന്നെ അടുത്ത് അതായത് ബുക്കിങ്ങിനു കിട്ടുമോ എന്നറിയാൻ വേണ്ടിയായിരുന്നു